പ്രിയപ്പെട്ടവര്ക്കൊപ്പമുള്ള വിനോദങ്ങളില് ഞാന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് യാത്രകളാണ് യാത്രകള് മനോഹരമാക്കി തീര്ക്കുന്നത് തീര്ച്ചയായും കൂടെ ഉള്ള ആള്ക്കാരാണ് നമ്മള് എത്തിപ്പെടുന്ന സ്ഥലങ്ങളെക്കാള് നാം ആസ്വദിക്കുന്നതും യാത്ര മനോഹരമാക്കി തീര്ക്കുന്നതും നമുക്കൊപ്പമുള്ള പ്രിയപ്പെട്ടവരാണ് യാത്രയുടെ ക്ഷീണമോ യാത്രയുടെ ബുദ്ധിമുട്ടുകളോ നാം അറിയാത്തതും നമുക്കൊപ്പം അത്രമേല് പ്രിയപ്പെട്ടവര് ഉള്ളത് കൊണ്ട് മാത്രമാണ് യാത്രകള് പോലെ മനസ്സിനെ മാറ്റിയെടുക്കാന് പറ്റുന്ന മറ്റൊരു മാര്ഗ്ഗമുണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല ദുഃഖിച്ചിരിക്കുന്ന ഒരാളാണെങ്കില് പോലും ഒരു യാത്ര പോവുകയാണെങ്കില് അയാൾക്ക് ഒരുപാട് മാറ്റങ്ങള് ആ യാത്ര കൊണ്ട് സംഭവിക്കാന് സാധ്യതയുണ്ട്